വിദ്യാസമ്പന്നൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു കാലത്തും ഒരിക്കലും നമുക്ക് പൂർണ്ണമായി ഒന്നിനെ കുറിച്ചും പഠിച്ച് തീരുന്നില്ല എന്നുള്ളതാണ് സത്യം അതായത് ഒരു മനുഷ്യൻ എന്നുള്ളത് എപ്പോഴും ഏതൊരു കാര്യം എടുത്താലും മരിക്കുന്നതുവരെ നമ്മള് ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ് നമ്മള് ഒരു കാലത്തും മുഴുവനായും ഒന്നും പഠിക്കണമെന്നില്ല പഠിക്കാൻ പറ്റുകയേയില്ല അതുപോലെ ഒരു വിദ്യാസമ്പന്നനായ ആൾക്ക് ഒരു എല്ലാ തത്വങ്ങളും പാലിച്ച് കൊണ്ട് ജീവിക്കാൻ പറ്റണമെന്നോ ഇല്ല

ഒരു മനുഷ്യത്വം എന്നുള്ളത് ഒരാളുടെ ബെസ്റ്റ് ക്വാളിറ്റി എന്നതിനേക്കാൾ ഒരാളുടെ ബേസിക് ക്വാളിറ്റി എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി ഉചിതം കാരണം എല്ലാ വിദ്യാഭ്യാസപരമായി എല്ലാ അറിവും നേടിയ ഒരാൾക്ക് ഹ്യൂമാനിറ്റി എന്നുള്ളത് ചിലപ്പോൾ ഉണ്ടാകണം എന്നില്ല അതേപോലെ നമ്മള് ഒരാളെ കാണുമ്പോൾ അവരുമായുള്ള പെരുമാറ്റം അതുപോലെ മറ്റുള്ളവരോട് സംസാരിക്കണ്ട രീതി ഇതൊക്കെ നമ്മക്ക് കിട്ടുന്നത് പ്രാഥമികമായി നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെയാണ് അങ്ങനെ നല്ല രീതിയിൽ വീട്ടിലുള്ളവർ നല്ല രീതിയിൽ സംസാരിക്കുകയും മക്കളെ നല്ല രീതിയിൽ നടത്തുകയും ചെയ്താൽ സ്വാഭാവികമായിട്ടും സമൂഹത്തില് അതിൻ്റെ മാറ്റങ്ങൾ കാണാൻ സാധിക്കും അതേപോലെ ആ നല്ല രീതിക്ക് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് സമൂഹത്തിലെ പല ഇപ്പോഴും നില നിക്കുന്ന പല നീചത്വങ്ങൾക്കും പരിഹാരം കാണാൻ അവർക്ക് കഴിഞ്ഞേക്കും ജാതി മതം നിറം വസ്ത്രം വർണ്ണം ലിംഗ സമത്വം ഇവയെല്ലാം ഒരിക്കലും ഒരു കാലത്തും അടിച്ചമർത്താനോ പരിഹരിക്കപ്പെടാനോ സാധിക്കാത്ത ഒരു തരം വൈറസ് ആണ് സമൂഹത്തിലുള്ളൊരു വൈറസ് അണുബാധയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇവയല്ല പ്രാധകിമ പ്രാഥമികമായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തില് സഹായിക്കുന്നൊള്ളത് സഹായിക്കുന്നത് എന്നുള്ള ബേസിക് ബോധമാണ് മനുഷ്യനെ പൊതുവായിട്ട് വേണ്ടത് ഇപ്പോഴും തൊട്ട് കൂടായ്മ ജാതി വ്യവസ്ഥ ഇതെല്ലാം ഉള്ള സംസ്ഥാനങ്ങളും അതേപോലെ സ്ഥലങ്ങളും നമുക്കിപ്പോഴും ഇന്ത്യക്കകത്ത് ഉണ്ട് എന്ന് പറയണത് അത്യധികം ലജ്ജാകരമായ ഒരു കാര്യമാണ് അതിൽ കൂടുതലും ഒരു പക്ഷെ വിദ്യാസമ്പന്നരാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇപ്പം അടുത്ത് ഒരു ഡോക്ടർ ഒരു ഗൈനക്കോളജിസ്റ് പറയുവാണ് പശുവിൻ്റെ കൗഡങ് തിന്നുന്നത് ഗർഭിണികൾക്ക് പ്രസവം എളുപ്പമാക്കാൻ സഹായിക്കുമെന്ന് ഇമ്മാതിരി തോന്ന്യവാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഒരു പഠിപ്പുള്ള ഒരാള് തന്നെ പറയുമ്പോൾ ഈ രാജ്യവും സമൂഹവും എത്ര മാത്രം അധഃപതിച്ചു എന്നുള്ളത് മനസ്സിലാക്കണ്ട ഒരു കാര്യമാണ് ഇതൊക്കെ മാറുന്ന ഒരു കാലം വരട്ടെ എന്ന് പ്രാർഥിക്കുക അല്ലാണ്ട് വേറെ വഴിയൊന്നും ഇല്ല